നിങ്ങൾ ഇങ്ങനെ ലെയ്റ്റ് ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കുക ഞങ്ങൾക്ക് ഒരു സമയത്ത് ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ക്യാബ് ബുക്ക് ചെയ്തത് ആ ക്യാബിൽ തോന്നണ സമയത്തു വന്നിട്ട് എന്നെ പിക്ക് ചെയ്യുക അതിൽ എന്തു കാര്യമാണ് ഉള്ളത് നിങ്ങൾ ചെയ്യുന്ന ജോലിയോട് നിങ്ങൾക്ക് എന്ത് ആത്മാർത്ഥതയാണ് ഉള്ളത് എനിക്ക് ഒരു സ്ഥലത്ത് നേരത്തെ എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ ക്യാബ് ബുക്ക് ചെയ്തത് അപ്പോൾ നിങ്ങൾ എന്നെ ആ സ്ഥലത്ത് എത്തിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് മനസ്സിലായില്ലേ അല്ലാതെ നിങ്ങളുടെ സൗകര്യത്തിന് വന്നിട്ട് അല്ല എന്നെ പിക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ടത് എനിയിപ്പം എൻ്റെ ഫ്ലൈറ്റ് ഇപ്പോൾ ഒരു പതിനൊന്ന് മണിക്കാണ് നിങ്ങളിപ്പോൾ വന്നത് പത്തേ മുക്കാലിനാണ് എനിക്ക് ഈ പതിനഞ്ച് മിനിറ്റുകൊണ്ട് ഒരിക്കലും എയർപോർട്ടിൽ എത്താൻ കഴിയില്ല എൻ്റെ ഫ്ലൈറ്റ് മിസ്സ് ആയി ആൾറെഡി എൻ്റെ ഫ്ലൈറ്റ് മിസ്സ് ആയി എനിയിപ്പം നിങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എനിക്ക് എൻ്റെ ഫണ്ട് തിരിച്ചു വേണം എനിക്കും എനിക്ക് ബാംഗ്ലൂർ ഒരു ഫംഗ്ഷൻ ഉണ്ട് ഞാൻ അങ്ങോട്ടേയ്ക്ക് പോകുവാൻ ഇറങ്ങിയതാണ് അപ്പോൾ എനിക്ക് എൻ്റെ ഫ്ലൈറ്റ് മിസ്സ് ആയി ആ ഫംഗ്ഷൻ എനിക്ക് ഇനി ഇപ്പോൾ നേരത്തെ എത്താൻ കഴിയില്ല നിങ്ങളിതിൻ്റെ സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ നിങ്ങൾ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കണം മനസ്സിലായി ഇത് ഞങ്ങൾക്ക് എന്നാൽ ഇപ്പോൾ എനിക്ക് എന്നാൽപ്പിന്നെ നടന്നു പോയാൽ പോരെ നിങ്ങളെ എന്തിനാ ഞാൻ വിളിച്ചത് എനിക്ക് എൻ്റെ നേരത്തെ എന്നെ എയർപോർട്ടിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വണ്ടി ഞാൻ ബുക്ക് ചെയ്തത് എന്നിട്ട് നിങ്ങൾ നിങ്ങളെ തോന്നുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കും നിങ്ങൾ സമാധാനം പറയണം എനിക്ക് എൻ്റെ പൈസ തിരിച്ചു തന്നേക്ക് എനിക്ക് എൻ്റെ പൈസ വേണം നിങ്ങൾ സമാധാനം പറയണം ഇല്ലെങ്കിൽ ഞാൻ കോടതിയിൽ പോയി കേസ് കൊടുക്കും ഇങ്ങനെ ആണെങ്കിൽ